കാർഷിക വിളകളുടെ വില കുറയുന്നു എന്നതു കർഷകര് വർഷങ്ങളായി കർഷകർ ചെയ്യുന്ന കർഷകർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം എന്തെന്നു വിചാരിച്ചാൽ നമുക്ക് ഇപ്പറിയാം ഈ ഒരു കർഷകർ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രൈമറി സോഴ്സാണ് കർഷകർ അതുകൊണ്ടുതന്നെ അവർ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നുള്ള വിളകൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവർ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അങ്ങനൊരു ചെയ്ന് ബിസിനസ്സ് പോലെ ലോകത്തമ്പാടും മറ്റു രാജ്യങ്ങളിലേക്കു കയറ്റുന്നത് മറ്റു ജനങ്ങളിലേക്ക് എത്തുന്നതൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ കൃഷിക്കാരായ ആളുകൾ ഈ ഒരു കാര്യത്തിൽ നിർബന്ധതരാകപ്പെടുകയാണ് അവർ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിളകൾ ലഭിക്കുകയും അ തുച്ഛമായ രീതിയിൽ മറ്റുള്ള ആളുകള് വാങ്ങിക്കൊണ്ടു പോവുകയും ആ ആളുകൾ അതിനെ വളരെ വളരെ വെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടുതന്നെയാണ് കർഷകർ നിരന്തരമായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിനുള്ള പരിഹാരം കാണാൻ ഒരു സർക്കാരിനും ഒരു സമിതിക്കും ആയിട്ടില്ല കാരണം അതിന്നുള്ള ലാഭമായ പണം ലാഭമായും മിച്ചം വരുന്ന തുക അവർ നിര്ത്തുക സർക്കാരുകളും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കൈപ്പറ്റുന്നു എന്നത് കൊണ്ടുതന്നെ കൃഷിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഇന്നേ വരെ വരുന്നില്ല അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കൃഷി എത്രത്തോളം നന്നായി പരിപാലിച്ചാലും അധിക കർഷകരും അവര് ലോണെടുക്കുന്നതു പോലുള്ള കാര്യങ്ങളിൽ നിർബന്ധമാക്കപ്പെടുകയാണ് കാരണം അവർക്കത്രത്തോളം ബാധ്യതകളും ചെലവുകളും വർദ്ധിച്ചുവരുന്നതുകൊണ്ട് അതൊക്കെ കൊണ്ടുതന്നെ കൃഷിയിടങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥര് കൃഷിയിൽ വിളവു കൂട്ടിയാല് അവിടെ കയറ്റുമതി നഷ്ടപ്പെടുമെന്നും മറ്റു ജനങ്ങൾ കൃഷി വാങ്ങാതാവുകയും ചെയ്യുക എന്നുള്ളതു വരികയും അതു കണ്ടുകണ്ട് അതു കണ്ടുകൊണ്ടാണ് സർക്കാർ ഇതിലൊരു പരിഹാരം കാണാന് കഴിയാത്തത് ഒരു ഒരു ആരു വന്നാലും കൃഷിയുടെ കാര്യത്തിൽ ഇങ്ങനെയേ നമുക്കു കാണാൻ കഴിയുകയുള്ളൂ ഇതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം വേണമെന്നു നമുക്ക് ആഗ്രഹിക്കാം